ഞങ്ങളുടെ അടുത്ത് എന്ന് പറയാനിട്ടു ഇപ്പോൾ എൻ്റെ അറിവിൽ ആകെ കൂടെ ഒരു എ ടി എമ്മേ ഉള്ളൂ അവിടെ കുറവ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാല് എ ടി എം ഞാനുപയോഗിക്കാറില്ല കാരണം ഞാന് ഉപയോഗിക്കുന്നത് ഒൺലി ഗൂഗിൽപേ ആണ് ഒന്നാമത്തെ തന്നെ എൻ്റെ ബാങ്ക് എ ടി എം കാർഡ് എന്റെ വര്ക്കിങ്ങ് അല്ല ഞാൻ രണ്ടു മൂന്നു പ്രാവശ്യം മുന്നേ ബാങ്കില് പോയി അന്വേഷിച്ചിരുന്നു പിന്നെ ഞാന് വിചാരിച്ചു എനിക്ക് വയ്യാതെ നടക്കാൻ അതുകൊണ്ട് ഞാന് അതിനെ പറ്റി പിന്നെ നടക്കണില്ല ഞാന് ഗൂഗിള്പേ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വരാറില്ല എങ്ങാനും ക്യാഷ് വരുന്നെങ്കില് ഞാനെന്തു ചെയ്യുകയെന്ന് വച്ചാല് ഹസ്ബന്ഡിന് പൈസ വച്ച് ആള് എടുത്തോണ്ട് വരികയാണ് ചെയ്യുക അങ്ങനെ ഇപ്പം പരമാവധി പിന്നെ എല്ലായിടത്തും ഗൂഗിള് പേയും പിന്നെ പേ ടി എം അങ്ങനത്തെ ക്യൂ ആര് കോഡ് സ്കാനറും ഒക്കെ ഉള്ള കാരണം കൊണ്ടു എനിക്ക് വലിയ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല